ഇന്ന് ഈ സമൂഹത്തിൽ ഞാൻ അധിവസിക്കുന്ന ഈ സമൂഹത്തിൽ പല തരത്തിലുള്ള കൃഷി രീതികൾ നിലനിൽക്കുന്നുണ്ട് ഇവിടെ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്ത് വരുന്ന കൃഷികളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഹൈ റേഞ്ച് മേഖല ആയതുകൊണ്ട് സമുദ്രനിരപ്പിൽനിന്നും വളരെ ഉയർന്ന പ്രദേശമായത് കൊണ്ട് ഇവിടെ ചില പ്രത്യേക കൃഷികൾ കൂടുതലായിട്ട് കൃഷി ചെയ്തു വരുന്നു ഉദാഹരണമായിട്ട് ഏലം കാപ്പി കുരുമുളക് ഇതൊക്കെയാണ് പരമ്പരാഗതമായിട്ട് ഇവിടെ കൃഷി ചെയ്ത് വരുന്ന നാണ്യവിളകൾ അതോടൊപ്പം തന്നെ ഭക്ഷ്യവിളകളായ മരച്ചീനി വാഴ തുടങ്ങിയ കൃഷികളും അതുപോലെത്തന്നെ പച്ചക്കറികളുമൊക്കെ ഇവിടെ ഈ പ്രദേശത്ത് കൃഷി ചെയ്ത് വരുന്നുണ്ട് നാണ്യവിളകൾ പ്രധാനമായിട്ടും വരുമാന സ്രോതസ്സിന് വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത് ഭക്ഷ്യവിളകളും വരുമാന മാർഗ്ഗമായിട്ട് കൃഷി ചെയ്യുന്നവരുമുണ്ട് അതുപോലെത്തന്നെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം കൃഷി ചെയ്യുന്നവരുമുണ്ട് നാണ്യവിള പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് ഇവിടെ കുരുമുളകും കാപ്പിയും ഏലവും ഒക്കെയാണ് അതിൻ്റെ കൃഷി രീതികൾ ഇവിടെ ലഭിക്കുന്ന മഴയെ ആശ്രയിച്ചാണ് പ്രധാനമായിട്ടും ഈ കൃഷികൾ നടത്തുന്നത് ഏലകൃഷിയെ സംബന്ധിച്ച് വളരെ മഴ അത്യാവശ്യമുള്ള ഒരു നാണ്യവിളയാണ് അത് മാത്രമല്ല കുറഞ്ഞ താപനില നിലനിൽക്കുന്ന സ്ഥലത്ത് മാത്രമേ ഇത് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യുമ്പോഴ് അത് മെച്ചപ്പെട്ട വിളവ് നൽകും കാലാവസ്ഥ പ്രതികൂലമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേനൽ കടുത്ത് പോയിക്കഴിഞ്ഞാൽ ജലസേചനം നടത്തിയാൽ മാത്രമേ ഏലകൃഷി നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ നല്ല തണുപ്പും ഈർപ്പവുമുള്ള അന്തരീക്ഷം ഏലകൃഷിക്ക് വളരെ അനിവാര്യമാണ് അതുപോലെ കുരുമുളക് കൃഷിക്കും ഉയർന്ന താപനില അനിയോജ്യമായ ഒരു കാലാവസ്ഥയല്ല നല്ല മഴയും സമയാസമയങ്ങളിലുള്ള മഴയുമൊക്കെ ലഭിച്ചാൽ മാത്രമേ മെച്ചപ്പെട്ട വിളവ് കുരുമുളക് കൃഷിയിൽനിന്നും ലഭിക്കുകയുള്ളൂ കുരുമുളക് കൃഷിയിൽനിന്ന് മെച്ചപ്പെട്ട വിളവ് ലഭിക്കാനായിട്ട് നേരത്തെ തന്നെ മഴ ലഭിക്കുകയും കുരുമുളക് വള്ളികൾ തിരിയിടുമ്പോഴ് ചെറിയ മഴ ലഭിക്കയും ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ കുരുമുളക് ലഭിക്കുകയുള്ളൂ കാപ്പികൃഷിയാണെങ്കിലും ഇതേപോലെ തന്നെയാണ് മഴ ലഭിച്ച് അത് പൂവിടുമ്പോഴ് ഏകദേശം പതിനഞ്ച് ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം അതിൻ്റെ പൂ വാടി കഴിയുമ്പോഴ് മഴ ലഭിച്ചാൽ മാത്രമേ കാപ്പിക്കുരു അതിൽ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ കാപ്പിക്കുരു ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് മെച്ചപ്പെട്ട കാലാവസ്ഥയാണ് ഏതൊരു കൃഷിയെ സംബന്ധിച്ചും നല്ല വിളവ് ലഭിക്കാനുള്ള ഉപാധി എന്ന് പറയുക അതുകൊണ്ട് മെച്ചപ്പെട്ട കാലാവസ്ഥയിലൂടെ മാത്രമേ ലാഭകരമായിട്ട് കൃഷി കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ ഇനി കാലാവസ്ഥ വിപരീതമാണെങ്കിൽ പലതരത്തിലുള്ള ജലസേചനത്തിലൂടെ ട്രിപ്പ് ഇറിഗേഷനിലൂടെ ഒക്കെ മെച്ചപ്പെട്ട വിളവ് ഉണ്ടാക്കാനായിട്ട് കഴിയും എന്നുള്ളത് അനുഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് അപ്പം അതുപോലെ പാരമ്പര്യമായ കൃഷി രീതികളിൽനിന്ന് വ്യത്യസ്തമായിട്ട് ശാസ്ത്രീയമായ കൃഷിരീതികൾ അവലംബിക്കുമ്പോഴും മെച്ചപ്പെട്ട വിളവ് ലഭിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് വസ്തുത